ഇന്ന് ശരീരഭാരം കൂട്ടാൻ ഒരുപാട് പേർ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ തടിച്ചവർക്ക് മെലിയാനും മെലിഞ്ഞവർക്ക് തടിക്കാനുമാണല്ലോ ഒരുപാടിഷ്ടം അപ്പോൾ ഈ മെലിഞ്ഞ മെലിഞ്ഞ ആൾക്കാർക്ക് ശരീരഭാരം കൂട്ടാൻ വേണ്ടിയിട്ട് നാട്ടുവൈദ്യങ്ങൾ ഒരുപാടുണ്ട് എന്താണെന്ന് വച്ചാൽ ഇപ്പോൾ നാട്ടുവൈദ്യം എന്ന് വച്ചാൽ ഈന്തപ്പഴം വെരകിയത് ഈത്തപ്പഴം വെരകുകയെന്ന് വച്ചാൽ ഒരുപാട് അതിൻ്റെ കൂടെ ബദാം അണ്ടിപ്പരിപ്പ് പിസ്ത അതുപോലെ തേങ്ങാപ്പാൽ അതൊക്കെ ഒഴിച്ച് നെയ്യൊക്കെ നന്നായി ഒഴിച്ച് അടുപ്പത്ത് വച്ച് ഉണ്ടാക്കുന്ന ഒരു ഇത് ഒരു രീതിയാണ് ഈത്തപ്പഴം വെരകിയത് അതിൻ്റെ മെയിൻ ഐറ്റം എന്നു പറയുന്നത് ഈത്തപ്പഴം തന്നെയാണ് നമ്മുടെ ശരീരത്തിലെ രക്തം കൂട്ടാനും അതുപോലെ ശരീരഭാരം കൂട്ടാനും മെയിൻ ഒരു ഐറ്റം ആണ് ഒരു നാട്ടുവൈദ്യം ആണ് ഈത്തപ്പഴം വെരകിയത് അതുപോലെ ഒരുപാട് അരിഷ്ടങ്ങൾ ഇപ്പോൾ വിശപ്പിനുള്ള ഒരുപാട് അരിഷ്ടങ്ങൾ ഇന്ന് എല്ലാവരും വാർദ്ധക്യമുള്ള ആൾക്കാരൊക്കെ കുടിക്കുന്നുണ്ട് അതെന്താണെന്ന് വച്ചാൽ ഒരുപാട് ആൾക്കാർക്ക് വിശപ്പ് ഉണ്ടാവില്ല അവർക്ക് ഭക്ഷണം വേണ്ടാത്ത ഒരു അവസ്ഥ വരുന്നുണ്ട് അപ്പോൾ ഈ അരിഷ്ടങ്ങൾ കുടിച്ചാൽ വിശപ്പ് കൂട്ടുകയും ഭക്ഷണം കഴിക്കാനും ശരീരഭാരം കൂടാനും കഴിയും അതുപോലെ കർക്കിടകത്തിൽ നമ്മൾ കഴിക്കുന്ന ഒരു മരുന്ന് ഒരുപാട് മരുന്ന് ഓഹ് മരുന്നുകളും അതുപോലെ അതിൻ്റോടൊപ്പം ശർക്കര അതുപോലെ മുത്താറി ഉള്ളി ചെറിയ ഉള്ളി ബദാം അതുപോലെ തേങ്ങാപ്പാൽ പിന്നെ അതുപോലെ ഗോതമ്പ് അതൊക്കെ ചേർത്തുകൊണ്ട് ഒരുപാട് സമയം അടുപ്പത്ത് വച്ച് കുറുക്കി കുറുക്കി ഉണ്ടാക്കുന്നൊരു രീതിയാണ് മരുന്നിന് ഉപയോഗിക്കുന്നത് പക്ഷേ ഈ മരുന്ന് കർക്കിടകത്തിൽ തിന്നാൽ നന്നായിട്ട് തടിക്കും എന്നാണ് പഴമക്കാർ പറയാറ് അതിന്നും എല്ലാവരും കർക്കിടകത്തിൽ ഒരുപാട് ആൾക്കാർ വാങ്ങും വാങ്ങി കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിന് നമ്മുടെ നാട്ടിൽ ഇപ്പം വലിയ നല്ല നല്ല പൈസയാണ് വാങ്ങാൻ അല്ലെങ്കിൽ ഓരോ കുടുംബങ്ങൾ ചേർന്ന് അതിയായ സാധനങ്ങൾ വാങ്ങിയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയും ചെയ്യാറുണ്ട്